ഇരുപത്തഞ്ച് ഒന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇരുപത്തി രണ്ട് പന്ത്രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് രണ്ട് രണ്ടായിരത്തിപ്പതിനെട്ട് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തിപ്പതിനെട്ട് ഇരുപത്തി ഒമ്പത് മൂന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത്